എൻ്റെ ജീവിതത്തില് എന്ത് മംഗളകരമായ ഒരു സംഭവം തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അമ്പലത്തില് പോവാറാണ് ചെയ്യുക രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോവുമ്പോൾ തന്നെയാണൊരു നല്ലൊരു ഫ്രഷ്നസ്സാണ് അങ്ങനെയാണ് ഒരു ഏതൊരു മംഗളകരമായ പരിപാടിയും തുടങ്ങുന്നത് അമ്പലത്തിൽ നിന്നാണ്